ഹലോ ഫുഡ് ഡെലിവറി ആപ്പ് അതെ എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം ഓൺലൈൻ ഓർഡറിങ് നടക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്ക് ഒരു ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതെ എനിക്ക് ഹോട്ടൽ ആദംസിൽ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി ആ ഒന്ന് ചിക്കൻ ബിരിയാണി പിന്നൊരു ബട്ടർ ചിക്കൻ ആൻഡ് ഫ്രഷ് ലൈം ആൻറ്റൊരു ബർഗർ എല്ലാം ഒന്ന് വീതം ബട്ടർ ചിക്കനെങ്ങനാണ് റേറ്റ് വരുന്നത് ഫുള്ളിന് ത്രീ ഹൺഡ്രടോ വേണ്ട ഹാ സിംഗിൾ മതി സിംഗിള് ഓക്കേ വൺ ഫിഫ്റ്റി ടോട്ടൽ റേറ്റ് ഓക്കേ ഓക്കേ അഡ്രസ്സ് അഡ്രസ്സ് പറയാമേ എൻ കെ മീരാ റോസ് വില്ല തേർഡ് ഫ്ലോർ എടപ്പിള്ളി നിയർ ചർച്ച് റോഡ് റൈറ്റ് റൈറ്റ് ആ യെസ് യെസ് അതെ അതെ അത്യാവശ്യം സ്പീഡ് സ്പീഡപ്പാവാണെങ്കിൽ വളരെ ഉപകാരം ഡെലിവറി ആ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ സൊ മച്ച്